ആ പറഞ്ഞോളൂ ഹലോ ആ കേൾക്കുന്നില്ലേ ആ എൻറ്റൊരു ലാപ്പ്ടോപ്പ് കംപ്ലെയ്ൻറ്റ് ആയിരുന്നു ആ അതെയതെ ആ കംപ്ലെയ്ൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഡിസ്പ്ലേ ബ്ലിങ്ങാവുന്നുണ്ട് പിന്നെ ഡിസ്പ്ലൈയിൽ ചില ലൈൻസൊക്കെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അതും അല്ലാണ്ട് പിന്നെ അതിൽ നമുക്ക് ഭയങ്കര ഹാങ്ങ് ഫീല് ചെയ്യുന്നു പ്രോപ്പറ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയാണ് ആ വാറണ്ടിയുണ്ട് അഞ്ച് വർഷത്തെ വാറണ്ടിയുണ്ട്

ആ ശരി ആ അതെയതെ നമ്മൾ ഇപ്പോൾ ആൾറെഡി വാറണ്ടിയുള്ളതുകൊണ്ട് അതിൽ മാറ്റിക്കിട്ടില്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ എത്ര എത്ര ആ എത്ര ടൈമ് എടുക്കും അയ്യോ അത്രയും ദിവസം നിൽക്കാൻ പറ്റില്ല ഡെയ്ലി യൂസ് ചെയ്യുന്ന ലാപ്പ് ആണ് നമുക്കത് എന്നാൽ നമുക്ക് കുറച്ച് ഇല്ല കീബോഡ് കംപ്ലെയ്ൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഞാനിപ്പോൾ പറഞ്ഞ ഈ കംപ്ലെയ്ൻറ്റ്കളൊക്കെ കാണിക്കുന്നുള്ളൂ അങ്ങനെയാവുമ്പം ഈയൊരു ടൈം ഡിലെ വരുമെന്നാ ആണോ ഓക്കെ എനിക്കത് ഡെയ്ലി വർക്ക് ഉള്ളത് കൊണ്ട് വളരെ അർജെൻറ്റ് ആയിരുന്നു അത് ആ അതാണ് ആണല്ലേ ഏകദേശം അഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടും അല്ലേ ആഹാഹാ ആ ഓക്കെ നിങ്ങളത് നോക്കിക്കോ പരമാവധി സ്പീഡ് ആക്കി ചെയ്യണം ഓക്കെ